ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുന്ന നമ്മുടെ രാജ്യം പുരുഷന്മാർക്ക് അത്രയും മുൻഗണന കൊടുക്കുന്നില്ല ആ ഉദാഹരണത്തിന് നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന ഒരു കൊലപാതകം കുറ്റം അതായത് ഗ്രീഷ്മ അവരുടെ കാമുകനെ ജ്യൂസ് കൊട് ജ്യൂസിൽ വിഷം കൊടുത്ത് കൊന്നു അതിന് കുറ്റത്തിന് അവൾ ജയിലിൽ പോയി ഇപ്പോൾ ഇത് പുരുഷനാണ് ചെയ്യുന്നതെങ്കിൽ അവൻ അത്ര കുറ്റകൃത്യത്തിന് ഉള്ള ശിക്ഷാ വധശിക്ഷ വരെ കൊടുക്കുന്നതാണ് പക്ഷേ ഇവിടെ സ്ത്രീയെന്ന മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ അവൾക്ക് അത്ര പ്രശ്നങ്ങളും അതുപോലെതന്നെ ശിക്ഷയും കിട്ടിയിട്ടില്ല ഇപ്പോൾ ജാമ്യത്തിന് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറെ നിയമവ്യവസ്ഥകൾ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ കുറേയുണ്ട് നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്ത്യങ്ങളെ കുറിച്ച് പറയാനുള്ള ആണെങ്കിൽ നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളായിട്ടുള്ള ചൈന കൊറിയ അങ്ങനത്തെ രാജ്യങ്ങൾ പോലുള്ള രാജ്യങ്ങളിലെ ശിക്ഷാവിധി വധശിക്ഷ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഉദാഹരണമായി എടുക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പീഡനം അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ മരണശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ അതായത് അവിടെ തടവ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും കൊടുക്കുന്നില്ല അവിടെ വധശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ത് അതുകൊണ്ടുതന്നെ അവിടെ കുറ്റകൃത്യങ്ങളും അങ്ങനെ പോലത്തുള്ള ശി ആ പ്രവൃത്തികളും ആരും ചെയ്യ ചെയ്യാൻ മുതിരാറില്ല നമ്മൾ ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാ പ്രവർത്തന പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എതിരെ നമ്മൾ ആഞ്ഞടിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ബോധവത്ക്കരണ ക്ലാസ് നടത്തുകയും വേണ്ടതാണ് നമ്മൾ നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കേണ്ടത് ഇനി വരുന്ന സമൂഹത്തെ വാർത്തെടുക്കാൻ നല്ലൊരു സമൂഹം ആയിട്ടായിരിക്കണം അതായത് കുറ്റകൃത്യങ്ങൾ ഇല്ലാതെ പീഡനങ്ങൾ ഇല്ലാതെ കള്ളവും കളങ്കവും ഇല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയട്ടെ അതിനുവേണ്ടിയുള്ള നിയമം നിയമങ്ങൾ നമ്മുടെ സർക്കാരും അതുപോലെതന്നെ രാജ്യത്തിനുള്ള മുന്ന മുന്നണി പ്രവർത്തകർ ആൾക്കാരും എടുക്കട്ടെ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മറ്റ് രാജ്യങ്ങളെ പോലെ സ്വതന്ത്രമായി സമാധാനത്തോടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ